ആ ഹലോ ആ പറഞ്ഞോളൂ ആ ഓക്കെ ആ ആ ആ ഓക്കെ മാമിൻ്റ റൂം നമ്പർ എത്രയാണ് എ ഒന്ന് പറയാമോ ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ മാം ഇപ്പം ഇവിടെ മോർണിംഗ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെജ് ആണോ നോൺവെജ് ആണോ പ്രിഫർ ചെയ്യുന്നത്

ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഓക്കെ രാവിലെ ഇപ്പം ഇഡ്ഡലി ദോശ സാമ്പാർ ചട്നി ഉണ്ട് പിന്നെ സേമിയ ഉപ്പ്മാവ് ഉണ്ട് ഓക്കെ പിന്നെ നോർമൽ ഉപ്പ്മാവ് ഉണ്ട് പിന്നെ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും ഉണ്ട് ഓ കെല്ലോഗ്സ് ആണോ ഓ ഉണ്ട് ഉണ്ട് ഉണ്ട് ഓക്കെ മാമിന് ഏതാണ് വേണ്ടത് ആ കോഫി ടീ അങ്ങനെ എന്തേലും വേണോ മാം ഓക്കെ ഓക്കെ ഓക്കെ ശരി മാം ഇപ്പം തന്നെ എത്തിക്കാട്ടോ ലഞ്ച് മെനൂന്ന് പറയുമ്പം ബിരിയാണി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ആ നോർമൽ മീൽസ് ഉണ്ട് ചട്ടിച്ചോറുണ്ട് ആ ഉണ്ട് ഉണ്ട് ഓ ഉണ്ട് കരിമീൻ പൊള്ളിച്ചതുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഡക്ക് റോസ്റ്റ് ഓക്കെ മാം ഇന്നത്തെ സ്പെഷ്യല് നമ്മുടെ സ്ക്വിഡ് ഇല്ലേ കൂന്തൽ കൂന്തൽ ഫ്രൈ ഉണ്ട് ആ അതെ മാമിന് അത് വേണോ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ശരി ശരി താങ്ക് യൂ